ഇപ്പോൾ ആരോഗ്യ സംരക്ഷണത്തിനൊക്കെ നമ്മൾ വേണ്ട രീതിയിലുള്ള പരിരക്ഷയും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഗവൺമെന്റ് നിന്നാണെങ്കിലും എല്ലാ കാര്യങ്ങളൊക്കെ ആണ് ചെയ്യുന്നുണ്ട് നമുക്കിപ്പോൾ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ അതായത് കേന്ദ്രസർക്കാരിൻ്റെ ആരോഗ്യപദ്ധതിയൊക്കെ ഉണ്ട് ആരോഗ്യ ഇൻഷുറൻസിൻ്റെ ഒരു കാർഡും കാര്യങ്ങളൊക്കെ നമ്മളവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മള് ഏത് ഹോസ്പിറ്റലിലാണോ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മളിവിടുന്ന് തന്നെ മിംസിലും ഒക്കെ നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് കൊണ്ട് ചെന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും മേജറായിട്ടുള്ള ഓപ്പറേഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഇൻഷുറൻസിലത് പൊയ്ക്കോളും അപ്പോൾ അതൊക്കെ നല്ല രീതിയിലുള്ള ഒരു കാര്യമാണ് കാരണം നമ്മള് ഓരോരുത്തരും അതിനു വേണ്ടിയിട്ട് എന്താ പറയുക ഇപ്പോൾ പൈസയൊന്നും ഇല്ലാത്ത വീട്ടിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്താണ് ഉണ്ടാവില്ല ഇപ്പോൾ ഇൻഷുറൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഓരോ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ഓരോ വാർഡുകളിൽ ഒക്കെ അതിനനുസരിച്ചുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രം മതി അപ്പോൾ അതിനുള്ളൊരു കാർഡും കാര്യങ്ങളൊക്കെ കിട്ടും അതിലൊരു നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വേണമെങ്കിൽ പറയാം